ആ ഡോക്ടറെ എനിക്ക് പനിയായിട്ട് വിളിക്കുന്നതാണ് അഭിഷ്ണ ഞാനിവിടെ മാനന്തവാടിയിൽ നിന്ന് പനി രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് നല്ല ചുമയും ഉണ്ട്

ഇതിപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി നല്ല പനി തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി അതിനുമുന്നേ ഇല്ല ഗുളിക ഒന്നും കഴിച്ചില്ല ഇല്ല ഞാനിന്നലെ ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു അതാണെന്ന് തോന്നുന്നു ഇതിനു മുന്നേ നല്ല തലവേദനയും ചുമയും ഉണ്ടായിരുന്നു ഈ രണ്ട് ദിവസത്തിന് മുന്നേ ആവി പിടിച്ചില്ല

ആ ആ ആ എപ്പോഴാണ് വരേണ്ടത്

ആ നല്ല തൊണ്ട വേദന ഉണ്ട് ആ ചെറിയൊരു ശ്വാസംമുട്ടും നല്ല തുമ്മലും ഉണ്ട് ആ ചുമ നല്ലോണം ഉണ്ട് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിരുന്നു പക്ഷേ കുറഞ്ഞിട്ടില്ല

ബ്ലഡ് ആ

ആ പിന്നെ കഫം ഭയങ്കര മഞ്ഞ കളറായിട്ടാണ് പോകുന്നത് ചുമച്ച് തുപ്പുമ്പം

ഡോക്ടർ ഇനി എപ്പോഴൊക്കെയാണ് ഉണ്ടാവുക ആ ഓക്കെ ഡോക്ടർ ഞാനെന്നാൾ വരാം ആ ശരി ആ ശരി